ഹലോ കേരളാ ജെയിലല്ലേ ആ ഞാനൊരു ട്രാവൽന് വേണ്ടീട്ട് കേരളത്തിലോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളുമൊക്കെയൊന്ന് കാണാൻ വേണ്ടീട്ടാരുന്നു അപ്പം നിങ്ങളേതൊക്കെ സ്പോട്ട് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നേന്നൊന്ന് അറിയാൻ വേണ്ടീട്ടൊക്കെയായിരുന്നു അ ആ ആ നിങ്ങൾ ഡയറക്റ്റായിട്ട് ബുക്ക് ചെയ്ത് തരുവോ അതോ ഞങ്ങളായിട്ട് റിസ്കെടുത്ത് ചെയ്യണോ അവിടത്തോട്ടൊള്ള റേറ്റും എമൗണ്ടും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിളാ ശരിയാണ് അപ്പം

ആ അതെ അതെ അതെ എക്സ്ട്രാ പേയ്മെന്റ് അക്കോമഡേഷൻ ഓർമയുണ്ട് ഫുഡ്ഡോ ഓക്കെ ഓക്കെ ആ ഹാ ഹാ ആ ആപ്പയീ ഉത്സവോം കാര്യങ്ങളൊക്കെയില്ലേ അപ്പോൾ അതൊക്കൊന്ന് ക്യാപ്ച്ർ ചെയ്യാൻ മറ്റ് കാര്യങ്ങളൊക്കെയൊന്ന് കാണാനും വേണ്ടീട്ടാരുന്നു പിന്നെ നമ്മൾ ഇടുക്കി മൂന്നാറ് അങ്ങൻത്തെ സ്പോട്ടൊക്കെയൊന്നു കാണാനും വേണ്ടീട്ടാരുന്നു കോഴിക്കോട് അങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങാൻ വേണ്ടീട്ടാരുന്നു ആ ശബരിമല സീസൺ ആ ഹ ഹ ഹ ഹ ഹ അത് കഴിഞ്ഞെന്നോ

ആ അത് ആ നിങ്ങളൊരാൾക്ക് എത്രയാണ് ഇതിപ്പൊ ഫാമിലിയായിട്ടാണ് വരുന്നത് ഞാൻ രണ്ട് ചിൽഡ്രൻസ് ഉണ്ട് വൈഫുണ്ട് പിന്നെ എല്ലാവരും കൂടെയാണ് ഒരാൾ വെച്ചിട്ടാ പെർ ഡേ ആ ഹ ഹ ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ആ മതി മതി മതി ഈ നമ്പർലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ആ നോൺ നോൺ വെജ്ജാ നോൺ വെജ്ജ് ആ ഓക്കെ അല്ല എനിക്ക് നോൺ വെജ്ജാണ് വേണ്ടത് ഇവിടെ ഞങ്ങൾ ബ്രാഹ്മിൺസാണെ അപ്പം നോൺ വെജ്ജാ വേണ്ടത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളും സെറ്റപ്പും എന്നാൽ നിങ്ങൾ തന്നെ ചെയ്ത് തെരില്ലേ ആ കഥകളി മോഹിനിയാട്ടം അതൊക്കെ ഒന്നു കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങൻത്തെയൊരു പരിപാടിയൊക്കെ ആക്കാൻ വേണ്ടീട്ടാണ് ഞങ്ങൾ വരുന്നത്

ബോട്ടിങ്ങ് ഹൗസ് ബോട്ടിങ്ങ് കാര്യങ്ങളൊക്കെ ആ ഹാ ഹാ ഹാ അപ്പോൾ അതിത് അയിരിക്കുലെ ആ ഹാ ഹാ ആ ഓക്കെ ഇപ്പോൾ ഞാനൊരു നൈറ്റോടെ സെവൻ എങ്ങനെ ആ ക്യാമ്പ്ഫയർ വേണം നൈറ്റോടെ ആ വെ വരുന്ന അന്നത്തെ ദിവസം വേണ്ടാ വേറെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ മതി ഞാൻ അന്നത്തിവസം റ്റയേഡ് ആരിക്കൂലോ ആ ഞാനെന്തേ എന്ത് ചെയ്യാ രണ്ടിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊന്നൂടെ മീറ്റ് ചെയ്യാം എന്നിട്ട് അത് ഒരാഴ്ച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്തിക്കാം കോഴിക്കോട് ബീച്ച് അതല്ലേ ലൊക്കേഷൻ വാട്സപ്പ് ചെയ്താൽ മതി